എൻ്റെ ബൈക്കില് ഞാൻ യാത്ര ചെയ്ത വൈകള് അല്ലെങ്കില് ബുദ്ധിമുട്ട് നിഞ്ഞ വൈകള് എന്ന് പറയുമ്പ ഞാനൊരു ട്രാവൽ അല്ലെങ്കി ഒരു യാത്രയപ്പഴ എമുക്കുന്ന വ്യക്തിയാണ് അപ്പ ഞാന് ഏകദേശം എല്ലാ ദിവസം അല്ലെങ്കിലും ആ ആഴ്ചയിലൽ ഏകദേശം എല്ലാ ദിവസങ്ങളും യാത്ര ചെയ്യാൻ താല്പര്യുന്ന ഒരു വ്യക്തിയാണ് പ്പ ഞാന എൻ്റെ ബൈക്കില് ഏറ്റവും കൂടുതൽ യാത്ര പോയത് മുംബൈയിലേക്കാണ് മുംബൈയിലേക്ക് ബൈക്കിൽ യാത്ര ചെയ്യുമ്പോളാണ് എനിക്കേറ്റവും കൂടുതൽ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടത് അതായത് നമ്മളെ കേരളം വിടണം ആദ്യം കേരളത്തില റോഡുകളെ കുറിച്ച് പറയുമ്പോ തന്നെ നമുക്കെല്ലാർക്കും അറിയാം എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായര് ഒര് കൊറേ ബുദ്ധിമുട്ടുകള് കുണ്ടുംകുഴികള്ന്ന്റഞ്ഞാ ചാളിന്ന്റഞ്ഞാ ഒരു റോഡ് സിസ്റ്റം ആയിരുന്നു അന്ന് കേരളത്തിലുണ്ടായിരുന്നു ഇപ്പ കൊറേ മെച്ചപ്പെട്ട് കൊണ്ടിരിക്കുന്നുണ്ട് അപ്പ അന്നൊര് മുംബൈയിലേക്ക് പോണ സമയം അന്നൊര് മഴയുള്ള കാലാവസ്ഥയാാണ്ള്ളത് അപ്പോ രാത്രിയാണ് നമ്മള് കാസർഗോഡ് ഭാഗത്ത കൂടെ സം സഞ്ചരിക്കണത് അവിടെ എത്തിയപ്പോഴാണ് ഒരു ചളി നിറഞ്ഞ ചളിവെളം നിറഞ്ഞ ഒരു കുഴിയില് വണ്ടി ജെസ്റ്റ് ഒന്ന് സ്ലിപ്പായി അങ്ങനെയാണ് കേരളത്തിന്റെ ദുരനുഭവം പറയുമ്പോ പറയാനുള്ളത് യാത്രയിലെ ബുദ്ധിമുട്ടുകള് പിന്നെ അത് കഴിഞ്ഞ് തമിഴ്നാട്മായി നല്ല അടിപൊളി റോഡോടെ ഇങ്ങനെ പോവാണ് പിന്നെ അത് കഴിഞ്ഞ് മുംബൈയിലെത്തുമ്പഴയാണ് പിന്നെയുള്ളത് മുംബൈയിലെ തെരുവോരങ്ങളിലൂടെ കൊറേ ആൾക്കാര് തിങ്ങി നെറഞ്ഞ ജനനിപുടമായ ആൾക്കാരും അവരുടെ അടയിലൂടെ നമ്മള് സൂക്ഷിച്ച് ബൈക്ക് ഓടിക്കണം ഇപ്പ നമ്മളീ കേരളത്തിലൊന്നും കാണാത്ത രീതിയിലുള്ള സ്ട്രീറ്റുകളാണ് അല്ലാന്നണ്ടെങ്കും അവിടെയള്ള മാർക്കറ്റുകള് ഇപ്പ നമുക്കറിയാം വ്യത്സ്തം വ്യയസ്തമായ ലേഡീസ് മാർക്കറ്റ് അല്ലെങ്കിൽ ഫാമിലി അങ്ങൻ്െ ഓരോ മാർക്കറ്റിന് ഓരോ പേരുകളാണ് അതിൻ്റെ അടയിലൂടെയാണ് നമുക്ക് നമ്മൾടെ ബൈക്ക് കൊണ്ടു പോകേണ്ടത്ള്ളത് പിന്നതുപോലെ അവിടെയള്ള അന്നത്തെ ഞങ്ങള് പോയ സമയത്ത അവിടെയും റെെനി സീസൺാണ് പിന്നെ ഞമ്മള കേരളത്തില പോലെ ഏകദേശം കേരള പോലെയുള്ള കൊണ്ടപയികുള്ള റോഡുകളാണ് അവിടെ അന്നുണ്ടായിരുന്നത് അപ്പൊന്നും അവിടെ എത്തിയപ്പോ നമുക്ക് അങ്ങനെ നൊരു ബുദ്ധിമുട്ട അവിടെ അനുഭ അനുഭവപ്പെട്ട് ബൈക്കില ആയ നമ്മള് ആ സമയത്ത് നമ്മളിങ്ങനെ ചിന്തിിട്ട ട്രെനില് പോയിരുന്നെങ്കില് അല്ലെങ്കി ട്രെയിനില് അങ്ങട്ട എത്തിയിരുന്നെങ്കില് കൊറച്ച കൂടി സേഫായിരുന്നു എന്നുള്ളതൊക്കെ ഇപ്പ നമ്മള് ബൈക്കായിട്ട് പോവുമ്പോ നമ്മള് ബൈക്ക് നമ്മള് നോക്കണം ബൈക്കിലുള്ള നമ്മെ ലഗേജ് കാര്യങ്ങളൊക്കെ നോക്കണം എന്നുള്ളതുകൊണ്ട തന്നെ ചെറിയൊരു ബുദ്ധിമുട്ടാന്ന് അനുഭവപ്പെട്ടിരുന്നു പിന്നെ നമ്മള് ഡെയിലി ലൈഫില് നമ്മള് ഏതിലൂടെ നമ്മടെ കേരളത്തില് നമ്മള നാട്ടിലൂടൊക്കെ സഞ്ചാരിക്കുമ്പോ തന്നെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകള് നമ്മളെ റോഡിൻ്റെ പ്രശ്നങ്ങള് തന്നെയാണ് അപ്പോ വരും കാലങ്ങളിൽ നമ്മള് സർക്കാർൊന്ന് മുൻകായി എടു നടത്തിയാല് നമ്മളക്കെ റോഡ് നമുക്ക്റിയ തമിഴനാട്ടിലെ റോഡാണ് ഏറ്റവും അടിപൊളി എനിക്ക് ഫീൽ ചെയ്ത് അടിപൊളി റോഡ കാരണം തമിഴനാട് എന്നുള്ളത് വളവുംൊന്നുംില്ലാതെ അങ്ങനെര് സ്ട്രൈറ്റ് പാത്തുള്ള ഒക്കെര ഒര് ലെവ ലെവലുള്ള ക്യാറ്റർക്കും അങ്ങനെൊന്ന് ഫീലെയ്യാത്തൊരു റോഡാണ് തമിഴ്നാടിലള്ളത് അപ്പോൊ കേരളത്തിൻ്റെ സാഹചര്യംെച്ച്ോക്കുമ്പോ അങ്ങന അല്ല അതുകൊണ്ട തന്നാണ് കേരളത്തിൽ ഇത്രയ ഒരു ബുദ്ധിമുട്ടുള്ളത് എന്നാലും വെരും കാലങ്ങളിൽ നമ്മള ബൈക്ക് റൈഡേഴ്സിനും മറ്റ് യാത്രക്കാർക്കൊക്കെ നല്ല പ്രതീക്ഷിക്കാവുന്ന അടിപൊളി റോഡുകളും സിസ്റ്റവമായിരിക്കും നമ്മെ കേരളത്തില്ൽ വേര് എന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്